ഹലോ സർ ഒരു ക്യാബ് ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ചതായിരുന്നെ എൻ്റെ അമ്മ ഇപ്പോൾ എറണാകുളത്തുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ ഇല്ലയെ അപ്പോൾ എനിക്ക് അമ്മേനെ ഒന്ന് എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ആ സാറിൻ്റെ നമ്പർ സാറിൻ്റെ നമ്പർ തന്നിരുന്ന സാറിൻ്റെ നമ്പറിലോട്ട് ഞാൻ അമ്മേനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇട്ടേക്കാം താങ്കൾ അവിടെ ചെന്നാൽ അമ്മയെ കൂട്ടിക്കൊണ്ട് നമ്മുടെ നഗ സിറ്റിയിലോട്ട് വന്നാൽ മതി അപ്പോൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അങ്ങോട്ടു വന്ന് അമ്മേനെ പിക്ക് ചെയ്തോളാം ഇവിടെ വരെ എത്ര രൂപയാകും എന്ന് ഒന്ന് പറയാമോ സർ പേയ്മെൻറ്റ് ഞാൻ ഗൂഗിൾ പേ വഴി ചെയ്തു തരാം അമ്മേനെ സേഫായിട്ട് എത്തിച്ചാൽ മാത്രം മതി